കേരളത്തില് കോട്ടയം ജില്ലയില് ഇവിടെ ജനിച്ചു വളർന്നവര് മലയാളം മാത്രമേ സംസാരിക്കാറുള്ളൂ വളരെ പ്രത്യേകിച്ച് അവര് തമ്മില്ത്തമ്മില് സംസാരിക്കുമ്പോള് പിന്നെ വിദ്യാഭ്യാസവും അത് നമ്മൾക്ക് കൂടുതലും ഗവൺമെൻറ്റ് മറ്റുള്ള എല്ലാ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഓഫിഷ്യലായിട്ടുള്ള ഭാഷയെന്ന് പറയുമ്പോള് മലയാള ഭാഷ എന്ന് പറഞ്ഞെങ്കിലും കാലാകാലങ്ങളായിട്ട് നമ്മള് ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇംഗ്ലീഷില് കമ്യൂണിക്കേഷന്നുനുണ്ടെങ്കില് ആശയവിനിമയം നടത്തുന്നതുകൊണ്ടും ഇംഗ്ലീഷിൻറ്റെ അതി അതിപ്രസരം എന്ന് തന്നെ നമുക്ക് പറയണം മലയാള ശുദ്ധമായ മലയാളഭാഷ തന്നെ നഷ്ട്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ആള്ക്കാര് വരുന്നവര് അവരവരുടെ ഭാഷ ഒര കേരളത്തില് വേറൊരു ഭാഷയും ആള്ക്കാര് എൻറ്റർടൈൻ ചെയ്യാതെ അതായത് പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് അവര് മിക്കവാറും മലയാളം പഠിച്ച് മലയാളികളെ പോലെ മലയാളം സംസാരിക്കുന്നവരായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്